ഹലോ ഡി എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ കല്യാണത്തിന് തിരക്കായത് കൊണ്ടട്ടോ വിളിക്കാഞെ ഒന്നും തോന്നരുത് കേട്ടോ അതെ കല്യാണത്തിന് തിരക്കും വിരുന്നും എല്ലാം നിനക്കറിയാവുന്നതാണല്ലോ അതെ അതെ തിരക്കായിരുന്നെടി വിരുന്നൊക്കെ പോയിട്ട് ഇപ്പോഴാണ് ഞങ്ങളൊന്ന് നിക്കുന്നത് ഇപ്പോഴാണ് ഒന്ന് ഫ്രീയായെ ചേട്ടായി ദേ കിടന്നുറങ്ങുന്നു ആ അവിടെ എല്ലാവരും എന്തെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും മോനെന്തു പറയുന്നു ആഹാ സുഖമായിട്ടിരിക്കുന്നല്ലേ ഒക്കെ ഒക്കെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് നീ നിൻ്റെ പേര് മാറ്റിയായിരുന്നോടീ ആ മാറ്റിയായിരുന്നല്ലേ അ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളെ പാസ്പോർട്ട് എന്തായാലും ചേട്ടൻ്റെ പേരാക്കാൻ പോവാ ചേട്ടൻ്റെ പേര് ചേർത്ത് എന്താണേലും എപ്പോഴാണെലും മാറ്റണല്ലോ അമ്മ വിളിച്ചു ഇന്നലെ വിളിച്ചായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു പേര് മാറ്റണമെന്ന് പറഞ്ഞു അപ്പം നാളെ പോയി പാസ്പോർട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് കരുതുന്നു ആ ഞാൻ ഒരു അപ്പോയിന്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വൈകിട്ടത്തേക്ക് അവരെയൊന്ന് പോയി കാണണം ആ ഇപ്പം കുറച്ച് ബിസിയാടി ഇപ്പം പോയിട്ട് വന്നല്ലെയുള്ളൂ ഒരു മൂന്നുമണിയക്കെ ആകുമ്പോഴ്ത്തേക്കും അങ്ങോട്ട് പോവാൻ വേണ്ടിട്ടാണ് അപ്പോയിന്റ്മെൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിൻ്റേത് നീ മാറ്റിയായിരുന്നോ ഇല്ലയോന്ന് അറിഞ്ഞു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങാനാന്ന് ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് മാറ്റിയായിരുന്നല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം എടീ അത് പെട്ടെന്ന് കിട്ടുവോ അതോ കുറച്ച് നാളെടുക്കുവോ പിന്നെ വേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണ് നീ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ഡിലെ ആകുവോന്നൊക്കെ അറിയാവോ അറിയുവോ കുറച്ച് ദിവസം എടുക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ആ എന്താണേലും മാറ്റണ്ടെല്ലേഡി പേര് അപ്പം പിന്നെ പാസ്പോർട്ട് അങ്ങ് അപ്ഡേറ്റ് ചെയ്തേക്കാമെന്ന് കരുതി അപ്പം പിന്നെ ആ ഇപ്പോഴെ ചെയ്യുവാണേൽ പിന്നെ അതിൻ്റെ പേരിൽ ഓടണ്ടല്ലോ